ഞാൻ എന്റെ വസ്ത്രങ്ങളെല്ലാം ഞാന് തന്നെയാണ് തയ്ക്കുന്നത് എനിക്കിത് തയ്യൽ വലിയൊരു താല്പര്യം ഉള്ള ഒരു ഇതായതുകൊണ്ട് ഞാന് തന്നെ മെഷീന് മേടിച്ചു മെഷീനിൽ തന്നെ എല്ലാം ചെയ്യും പിന്നെ അത്യാവശ്യം അടിക്കാനുള്ളതെല്ലാം ഞാൻ അതിൽ ചെയ്യും പിന്നെ മാസികകളിലൊക്കെ ത ഓരോ പഠിത്തം കഴിഞ്ഞ് കൂടാതെ പുതിയ പുതിയ രീതിയിലുള്ള ആ വസ്ത്രങ്ങൾ കാണുമ്പം അതിന്റെ ഡിസൈനുകൾ ഞാൻ കണ്ട് മനസ്സിലാക്കി ഞാന് തന്നെ ചെയ്ത് പോകും അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്റെ മെഷീനെ സൂക്ഷിക്കാറുണ്ട് ആ സൂക്ഷിക്കുന്ന സ അതുകൊണ്ട് ഇപ്പം നോ ഉണ്ടാകാവുന്ന സംഭവങ്ങള് ചിലപ്പം നൂല് എ ഇടയ്ക്ക് മീതിയില് ക പിടിത്തം വരാറുണ്ട് അത് ഞാന് എടുത്ത് കേസ് ഊരി നോക്കി എല്ലാം ക്ലിയർ ആക്കും നൂൽ പൊട്ടിപ്പോവുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് പുതിയതായിട്ട് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഈ ഇതിന്റെ പ ഇങ്ങനെ കറങ്ങുന്ന ഇതിൽ ട്വയിൻ ഇതിലൊക്കെ കിടക്കുന്ന വള്ളി അതിന് വല്ലതും സംഭവിച്ചാൽ അതിനെ ക്ലിയർ ചെയ്യും അതുപോലെ തന്നെ ഞാൻ അത് അയച്ച് കൊടുക്കും അല്ലെങ്കിൽ അത് ശരിയാക്കും അതുപോലെ തന്നെ ഇത് ഞാന് എണ്ണയിട്ട് കൊടുക്കും മെഷീൻ എപ്പോഴും ഞാന് ശ്രദ്ധിക്കും അതിനെ പരിപാലിക്കും അതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് സാധാരണ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഞാൻ ഇടുന്ന സാധനം ഇതെല്ലാം നല്ലതാണെന്ന് അപ്പം ഞാന് മറ്റുള്ളവര്ക്കും അത് ചെയ്ത് കൊടുക്കും ഇനി മെഷീൻ ഉള്ളവര്ക്കൊക്കെ ഞാന് പറഞ്ഞ് കൊടുക്കും നമ്മൾ എപ്പൊഴും മറ്റൊരാളെ കൊടുത്ത് കാശ് വെറുതെ കളയാതെ അത്യാവശ്യം പണിക്കുറ്റങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്ത് പോകാന് പറ്റും ഇപ്പം ഒയം ഒയെ ഓയിൽ ഒഴിക്കുന്നത് അത് നമുക്ക് തന്നെ വീടുകളിൽ ഉണ്ടാക്കാം ഓയിൽ മേടിക്കേണ്ട പിന്നെ ഈ കേസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇത് കഴിയുമ്പം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക അല്ലെങ്കിൽ എക്സ്ട്രാ ഒരെണ്ണവും കൂടെ മേടിച്ച് വയ്ക്കുക പിന്നെ നൂലൊക്കെ നമ്മൾ പിടിത്തം വരാതെ നോക്കുക പല്ല് സോ സൂചി ഒടിയാതിരിക്കാന് നോക്കുക ഇതിനെ പല്ല് പിടിക്കാതിരിക്കാന് നോക്കുക ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക മെഷീനിന്റെ ഈ ചക്രം കറങ്ങുന്ന ആ അത് പന്നെ പുറകോട്ട് കറങ്ങാതെ ഇരിക്കുക ചവിട്ടുമ്പം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം എല്ലായിടത്തും മോട്ടർ ഒക്കെ വെച്ചുള്ള പരിപാടികളല്ലേ ആ രീതിയില് നമുക്ക് അത് ചെയ്യാന് സാധിക്കും അപ്പം ഒരു പരിധി വരെ നമുക്ക് നമ്മുടേതായ തുന്നല് മെഷീനിൽ നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാം വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കില് മാത്രം അതിന്റെ സാങ്കേതികവിദ്യ അറിയാവുന്നവരെ സമീപിച്ചാൽ മതി അല്ലാത്തതൊക്കെ നമുക്ക് തന്നെ ചെയ്യാം അപ്പം നല്ല സ്വന്തമായി തയ്ക്കാന് സാധിക്കുന്നതൊരു സംതൃപ്തിയാണ് സ്വന്തമായിട്ട് തയ്ച്ചത് മറ്റുള്ളവർ കാണുമ്പോൾ അംഗീകാരം തരുന്നത് നമുക്ക് ഒരു സംതൃപ്തിയാണ് പിന്നെ സ്വന്തമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് നമുക്ക് സാമ്പത്തികം കുറച്ച് മിച്ചം പിടിക്കാന് സാധിക്കും അങ്ങനെ സ സ്വന്തമായി തയ്യല് അഭ്യസിച്ചത് കൊണ്ട് നമ്മുടെ സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പം നമ്മുടെ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളില് ചിലവഴിക്കുമ്പം അത് നമുക്ക് മാനസികമായിട്ട് ഒത്തിരി ആരോഗ്യം ലഭ്യമാകും അങ്ങനെ അതുകൊണ്ട് തയ്യലിനോട് സംബന്ധിച്ച് ഒരു നല്ല വലിയ പിഴവുകളും പിശകുകളും ഒന്നും ഇല്ലാതെ പോകാന് സാധിക്കുന്നു പിന്നെ നൂതനമായ കാര്യങ്ങൾ അറിവുള്ളവരില് നിന്ന് ചോദിച്ച് മനസ്സിലാക്കി അതും ചെയ്യാറുണ്ട് പിന്നെ മെഷീൻ ഒക്കെ ആണെങ്കിലും ഇപ്പം പഴയ കാലഘട്ടങ്ങളിലെ മെഷീൻ ഒക്കെ മാറി നൂതനമായ മെഷീനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പ ആ അവസ്ഥയിലേക്ക് മാറാന് പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ സാമ്പത്തികം എത്രമാത്രം ആണെന്ന് ചിലവ് എത്രമാത്രമാണെന്ന് അന്വേഷിക്കുന്നുണ്ട് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ വരുവാണെങ്കില് അത് സ്വീകരിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നു നല്ല ഒരു രീതിയില് പോവാനായിട്ട് ഒത്തിരി താല്പര്യപ്പെടുന്നു